ഒരിക്കൽ എറണാകുളത്ത് പി എസ് സിയുടെ ടെസ്റ്റ് ബാങ്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു അതിനു പോകുന്നതിനായി അടുത്തുതന്നെ ഉള്ളൊരു ഓട്ടോ ഓട്ടോ ഓട്ടോ ബുക്ക് ചെയ്തു റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കാൻ ഇറക്കണം എന്നുപറഞ്ഞു പക്ഷേ ഡ്രൈവർ സമയത്ത് എത്താതിരുന്നതിനാൽ എനിക്ക് ട്രെയിൻ മിസ്സ് ആവുകയും ബസ് തപ്പിപ്പിടിച്ച് എനിക്ക് അന്ന് എറണാകുളത്ത് ചെന്നപ്പോഴത്തേക്കിനും എനിക്ക് ആ ടെസ്റ്റ് എഴുതാൻ കുറച്ച് സമയം മാത്രമേ കിട്ടിയുള്ളൂ വളരെ കൃത്യതയോടെ നടത്തിയ ആ ടെസ്റ്റിൽ എനിക്ക് ഫെയിൽ ആകേണ്ടി വന്നു ആ പരീക്ഷയ്ക്ക് ശേഷം തിരിച്ചു വന്ന് തിരിച്ചുവന്ന് ഡ്രൈവർ ഡ്രൈവറോട് കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾ എത്താതിനാലാണ് എനിക്കാ പരീക്ഷ കൃത്യമാ സ് നിശ്ചിത സമയത്ത് എഴുതാൻ സാധിക്കാതിരുന്നത് അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ പരാജയപ്പെടുകയും ചെയ്യുകയാണുണ്ടായത് അപ്പം ഡ്രൈവറിൻ്റെ അനാസ്ഥ മൂലം അല്ലെങ്കിൽ കൃത്യസമയം പാലിക്കാത്തതിനാൽ ഞാൻ റീഫണ്ട് ആവശ്യപ്പെട്ടു ഞാൻ തന്ന ഓട്ടോ കൂലി തിരിച്ചുതരണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടു പക്ഷേ അദ്ദേഹം അതിന് തയ്യാറായില്ല ഞാൻ പരാതി കൊടുക്കുമെന്നുള്ള സാഹചര്യത്തിൽ എത്തി എത്തി അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എനിക്ക് അതിനോട് പൊരുത്തപെട്ടുപോകാൻ സാധിച്ചിരുന്നില്ല വളരെ കഷ്ടപ്പെട്ട് വളരെ നല്ല രീതിയിൽ ബാങ്ക് ടെസ്റ്റിനുവേണ്ടി പഠിക്കുകയും ദിവസങ്ങളോളം ഉറക്കമിളച്ചിരുന്ന് നന്ന നല്ല രീതിയിൽ പഠിക്കുവേം ചെയ്തിട്ട് എനിക്ക് ആ എക്സാം നല്ല രീതിയിൽ അറ്റൻഡ് അറ്റൻഡ് ചെയ്യാൻ ചെയ്യാൻ ചെയ്യാൻ സാധിച്ചിരുന്നില്ല അതിനു കാരണം ആ ഓട്ടോ ഡ്രൈവർ ആണ് അപ്പോൾ അത് അദ്ദേഹത്തിനെതിരായിട്ട് പരാതി കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ പൈസ തിരിച്ചു തരണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു ഞാൻ ആ പരീക്ഷ എഴുതിയിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് ആ ജോലി ലഭിച്ചേനെ അത്ര നന്നായിട്ട് ഞാൻ ഉറക്കം ഇളച്ചിരുന്നും രാവിലെകളിലും ഒക്കെയാണെങ്കിലും നന്നായിട്ട് വിഷയത്തെ കുറിച്ച് പഠിച്ച് പോം വന്നതാണ് അപ്പം ഓട്ടോ ഡ്രൈവറ് ൻ്റെ ആ ഒരു സമയ പാലിക്കാത്ത സമയക്രമം പാലിക്കാത്തതിലെനിക്ക് നിശ്ചിതസമയത്ത് റെയിൽവേ സ്റ്റേഷൻ എത്താൻ എത്താൻ സാധിച്ചില്ല എന്നിട്ട് അത് കഴിഞ്ഞ ശേഷം ബസ്സിലാണ് യാത്ര ഇണ്ട് എറണാകുളത്തേക്ക് പോയത് അവിടെ ചെന്നപ്പോഴത്തേക്കും ടെസ്റ്റിൻ്റെ കുറച്ചു സമയം ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റോളം എനിക്ക് നഷ്ടമായി അത് ഞാൻ ഫിൽ ചെയ്ത് ഫിൽ ചെയ്യാണ്ട് ബബിൾ ചെയ്ത് എക്സാം ആയിരുന്നു ആ എക്സാം എനിക്ക് അങ്ങനെ നല്ല രീതിയിൽ ചെയ്യാൻ സാധിച്ചിരുന്നില്ല എൻ്റെ എനർജി ഒക്കെ അവിടെ നഷ്ടപ്പെട്ടു ആ ട്രെയിൻ മിസ്സ് ആയപ്പോൾ തന്നെ എൻ്റെ എനർജി ഒക്കെ നഷ്ടപ്പെട്ടു എനിക്ക് അത് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല സാധിച്ചില്ല അപ്പോൾ ഓട്ടോക്കാരനോട് പരാതി പറഞ്ഞു ആ റീഫണ്ട് തരാൻ എൻ്റെ ഞാൻ തന്ന പൈസ റീഫണ്ട് ചെയ്ത് തരണമെന്ന് പരാതി പറഞ്ഞു ആദ്യമൊക്കെ അദ്ദേഹം സമ്മതിച്ചില്ല പിന്നീട് തരാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഒരുപാട് താമസം ഇപ്പോഴും നേരിടുകയാണ് അദ്ദേഹം അത് തന്നിട്ടില്ല ഇപ്പോഴും തരാം തരാം എന്ന് പറയുന്നുണ്ട് എങ്കിലും ആ ഒരു സമയം ആ ജീവിതത്തിലുണ്ടായ ആ ഒരു അത് വലിയ ഒരു നഷ്ടം തന്നെയാണ് ഒരിക്കലും നമുക്ക് ആ സമയ നഷ്ടത്തെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കില്ല അങ്ങനെ ഒരു അനുഭവം ദുരനുഭവം ഒരിക്കലും ആർക്കും ഉണ്ടാകാതിരിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ ആ ഒരു നിമിഷത്തെ ഞാനിന്ന് വളരെ വേദനയോടെയാണ് ഓർക്കുന്നത് ആ നല്ലൊരു എക്സാം നല്ലൊരു ജോലി എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയി എന്നുള്ളതാണ് വാസ്തവം